ഞങ്ങളുടെ പ്രദേശത്ത് കലകളെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പല ഞങ്ങളുടെയിവിടുത്തെ ഒരു പ്രദേശത്ത് കൂടുതലായിട്ടും സിനിമ ഷൂട്ടിങൊക്കെ നടക്കുന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഒരു സമയത്ത് ഇവരെന്താണ് ഒരു ഓണത്തിൻ്റെ സമയത്തൊക്കെ ഇവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ സമയത്ത് നമ്മളിവിടെ നടത്തുന്ന ആഘോഷ പരിപാടികൾ കണ്ടിട്ട് അതിൻ്റെ ഒരു ഭാഗം അതായത് സിനിമയുടെ ഒരു ഭാഗമായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ എന്താണ് നല്ല രീതിയിൽ എന്താ പറയുക നമ്മളുടെ ഒരു പ്രത്യേക തരം ഒരു കലാരൂപം നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കാട്ടിലുള്ള ആൾക്കാരുടെ നൃത്തരൂപമായിരുന്നു നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന അത് അവിടുത്തെ ആൾക്ക് ഭയങ്കര ആ സിനിമക്കാർക്കത് ഭയങ്കര ഇഷ്ട്ടപ്പെട്ടിട്ട് അവരത് എന്ത് ചെയ്തു ഷൂട്ട് ചെയ്തിട്ട് അവര് സിനിമയിലെ ഭാഗമായിട്ട് കൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെയി വിടെ നമ്മൾ നിർമിച്ചിരിക്കുന്ന ഒരു ഒരു പ്രത്യേക തരം ഒരു കെട്ടിടം ഉണ്ട് നമ്മൾ എന്താ പറയുക അത്രത്തോളം നമ്മൾ നാടകീയമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളാ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആ കെട്ടിടത്തിൽ വച്ചിട്ടൊക്കെ ഇവര് എന്ത് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടത്തിയിട്ട് പോയിട്ടുണ്ട്